തീർച്ചയായും ഇപ്പം പാലക്കാട് ജില്ലയെന്ന് പറയുമ്പോൾ കേരളം രൂപീകരിക്കപ്പെടുന്ന ആ ഒരു രൂപീകരണ സമയത്തുണ്ടായ ജില്ലയാണ് പാലക്കാട് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്നും പാലക്കാട് എന്ന ജില്ല ഈ ഒരു കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്ന് പറയുന്ന ഈ ഇത്രയും കാലഘട്ടങ്ങളുടെ ഒരുപാട് മാറ്റങ്ങൾ പാലക്കാടിന് വന്നിട്ടുണ്ട് അപ്പോൾ നോക്കുകയാണ് വെച്ചാൽ പാലക്കാടിന് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ പാലക്കാട് നഗരം ഒരുപാട് പുരോഗമിച്ചിരിക്കുന്നു റോഡും മറ്റ് സംവിധാനങ്ങളൊക്കെ പാലക്കാട് ഒരുപാട് പുരോഗമിച്ചിരിക്കുന്നു ബസ് മറ്റും ട്രെയിൻ സംവിധാനങ്ങളായിക്കോട്ടെ എല്ലാ പ്രദേശങ്ങളിലോട്ടും ഉണ്ട് പാലക്കാട് നഗരം നോക്കുകയാണ് വെച്ചാൽ ഒരുപാട് കെട്ടിടങ്ങളും ഒരുപാട് സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഒരുപാട് സ്കൂളുകളും കാര്യങ്ങളൊക്കെ വന്നു അതുപോലെതന്നെ അവിടെ ഉള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പഴയ കോളേജുകളായിക്കോട്ടെ പുതുക്കി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട് അപ്പോൾ പാലക്കാട് നഗരങ്ങൾ നോക്കുകയാണ് വെച്ചാൽ എല്ലാം ഭാഗത്തും നമുക്ക് കടകളും മറ്റ് സ്ഥാപനങ്ങളും ഹോട്ടലുകളും ഒക്കെ കാണാൻ സാധിക്കും അങ്ങനെ ഒരുപാട് മാ മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ആളുകൾ പാലക്കാടിലെ ആളുകളുടെ താമസമായിക്കോട്ടെ ഒരുപാട് വീടുകളും പുതിയ വീടുകളും മറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ജനസംഖ്യ ആയിക്കോട്ടെ പാലക്കാട് ഒരുപാട് കൂടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പം പാലക്കാടങ്ങനെ ഒരുപാട് എന്താ പറയുക ആളുകൾ വന്നതോടുകൂടി അവിടുത്തെ എന്താ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം മെച്ചപ്പെട്ടു അവിടെ സ്റ്റേഡിയം കെ എസ് ആർ ടി സി സ്റ്റാൻ്റ് ടൗൺ സ്റ്റാൻ്റ് പറഞ്ഞ് ഒരുപാട് ബസ് സ്റ്റാൻ്റുകളുണ്ട് ആൾക്കാർ താമസിക്കുന്ന രീതിയിൽ ഭക്ഷണം നമുക്കായിക്കോട്ടെ നമ്മൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ പാലക്കാട് എല്ലാവരുടെയും എല്ലാതരത്തിലുള്ള ഭക്ഷണം ശാലകൾ ഇപ്പോൾ ഹോട്ടലുകൾ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ അതുപോലത്തന്നെ എങ്ങനത്തെ വെസ്റ്റേൺ സ്റ്റൈലാണോ അതുപോലെത്തന്നെ തനി നാടൻ സ്റ്റൈലാണോ ഹോംലി ഫുഡാണോ അതിനനുസരിച്ച് ഹോട്ടലുകളും മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എല്ലാറ്റിനുമുള്ള സൗകര്യങ്ങളും പാലക്കാട് വന്നിട്ടുണ്ട്